വൈവിധ്യങ്ങളുടെ നാടായിട്ടാണ് ഇന്ത്യ എന്ന രാജ്യം അറിയപ്പെടുന്നത് ഭൂപ്രകൃതി ഭാഷ തുടങ്ങിയ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് ഇന്ത്യക്ക് ഉപ്പ് സത്യാഗ്രഹം ആണ് നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ചരിത്ര നിമിഷം ഒരുപാട് പടവെട്ടിയാണ് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് നെഹ്റു തുടങ്ങിയ നേതാക്കൾ വെള്ളക്കാരുടെ അടുത്ത് നിന്ന് ഇന്ത്യ എന്ന രാജ്യത്തെ മോചിപ്പിച്ച് ഇന്നത്തെ ഇന്ത്യയിലേക്ക് കൊണ്ട് വന്നത് നമുക്ക് സ്വതന്ത്ര സമരത്തിൽ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് നെഹ്റു തുടങ്ങിയ ഒരുപാട് നേതാക്കൾ നമുക്ക് പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോ ചരിത്ര നിമിഷങ്ങളാണ് നമുക്ക് അഭിമാനി ഇന്ത്യയിൽ ജനിച്ച ഓരോ പൗരന്മാർക്കും അഭിമാനിക്കാവുന്ന ഒരുപാട് നിമിഷങ്ങൾ തന്നിട്ടാണ് നമ്മുടെ നേതാക്കന്മാർ നമ്മെയൊക്കെ വിട്ട് പോയത്